ഞാൻ ഒരു കർഷകനാണ് കർഷകരായി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു വസ്തുതയാണ് പിന്നെ മെയിനായിട്ടും ചെയ്യുന്നത് നെൽ കൃഷിയാണ് പക്ഷെ നെൽകൃഷിയുടെ ഒരു പ്രത്യേകത എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് നല്ല സർക്കാർ തന്നെ സംഭരിക്കുന്ന ഒരു രീതി നാട്ടിലുള്ളതു കൊണ്ട് അവർ അത് സംഭരിക്കുന്നു അതിൻ്റെ വില കൃത്യമായി കർഷകർക്ക് ലഭ്യമാകും അത് നെൽകൃഷിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് പക്ഷെ മറ്റുള്ള കാർഷിക വിളകൾ കപ്പ ആയാലും അല്ലെങ്കിൽ വാഴ ഏത്ത വാഴ ആയാലും മറ്റു വിളകൾ പച്ചക്കറികൾ ആണെങ്കിൽ പോലും നമ്മൾ ചിലത് വിളവ് വന്നു കഴിയുമ്പോൾ അത് വിൽക്കാൻ ചെല്ലുമ്പോൾ ലോക്കൽ കമ്പോളങ്ങളിലെ അത് അത്ര സ്വീകാര്യമായി വരികയില്ല പിന്നെ ഇത് കൊണ്ട് അടുത്ത മാർക്കറ്റിലേക്ക് പോവുക മാർക്കറ്റിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന വിലയ്ക്ക് അത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക കാരണം വച്ചാൽ ഈ പറയുന്ന വില കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില നമുക്ക് മുതലാകുന്ന ഒരു വിലയും നമുക്ക് ലഭ്യമാകാൻ വളരെ സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിങ് എന്നുള്ള രീതിയിൽ നേരിട്ട് വിൽപ്പന നടത്തുന്ന ഒരു സംവിധാന ശൈലിയിലേക്ക് മാറും ഇപ്പം കപ്പയാണെങ്കിലും ഇഷ്ടം പോലെ കപ്പകൾ വന്നു കഴിഞ്ഞാൽ കപ്പയ്ക്ക് വില കുറയും വില കുറഞ്ഞാല് അത് എത്ര വില കുറഞ്ഞാലും അതിൻ്റെ മുടക്ക് മുതലിന് ഒരു രീതിയിലും വിലയിൽ ചിലവുകൾ കുറയില്ല അതിന് അടിസ്ഥസരപരമായി ചെയ്യേണ്ട ചിലവുകളെല്ലാം ചെയ്തേ പറ്റു പക്ഷേ വിൽപ്പനയിൽ വരുമ്പം വിലയിൽ കുറവുകുകളുണ്ടായി അതിൽ നിന്നും ആ കർഷകന് ആവശ്യമായ വരുമാനം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട് അപ്പം അതിനെ തണം ചെയ്യുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിങ്ങ് കച്ചവടക്കാരെ ഒഴിവാക്കി നമ്മൾ നേരിട്ട് വിൽക്കുന്ന ഒരു രീതി അത് ഇപ്പം നമ്മുടെ സ്ഥലങ്ങളിൽ പല യിടത്തും കാണാറുണ്ട് വഴി സൈഡിലൊക്കെ ആണെങ്കിലും നേരിട്ട് അവരുടെ സാധനങ്ങൾ അവർ വിൽക്കുക പത്ത് കിലോ അല്ല ഇരുപത് കിലോ കപ്പ ആണെങ്കിലും ഒരു ചെയ്തു ആൾക്കാർക്ക് നേരിട്ട് വിൽക്കുക കച്ചവടക്കാരില്ലാതെ നേരിട്ട് വിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാഭകരമായി മാറുകയുള്ളു പിന്നെ ഉള്ളത് ബൾക്ക് കച്ചവടക്കാർക്ക് നമ്മൾ വിൽക്കുക അവർ അത് വലിയ കച്ചകക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു തോട്ടം മൊത്തം ഏത്തവാഴ ആണെങ്കിലും അല്ലെങ്കിൽ കപ്പ ആണെങ്കിലും അത് മൊത്തത്തോടെ വാങ്ങി അവർ അത് മറ്റു പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കപ്പയിൽ നിന്നും മറ്റു പ്രോഡക്റ്റുകൾ അതായത് ചിപ്സോ ഈ അതുപോലെയുള്ള ഉണക്ക കപ്പ ഉണങ്ങുന്ന ഡ്രയർ പോയി അതൊക്കെ പൊടി ഉണ്ടാക്കുന്ന ഫക്ടറികളിലേക്കൊക്കെ കൊണ്ടു പോകാനായിട്ട് കൊണ്ടു പോയി വിൽക്കപ്പെടുക ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ കച്ചവടക്കാർ കൂടുതൽ കൃഷി ചെയ്താൽ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഏത്തവാഴ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അപ്പം നമുക്ക് അറിയാം പൈനാപ്പിള് ഓരോ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാറുണ്ട് പക്ഷെ കൃഷി ചെയ്തു അതിൻ്റെ ആദായത്തിലേക്ക് വന്നു കഴിയുമ്പം അത് വില കുറയുന്നു അപ്പം അത് ഓപ്പൺ മാർക്കറ്റിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അതിൻ്റെ കമ്പോളങ്ങൾ കണ്ടെത്തുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ടാസ്ക് പിടിച്ച പക്ഷെ അത് പാടാണ് പക്ഷേ കച്ചവടത്തിൽ ഗവൺമെൻ്റൊക്കെ അതിനൊക്കെ നല്ല രീതികളിലൂടെ പച്ചക്കറിക്ക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് തന്നെ ഒരു പച്ചക്കറി കൃഷിവകുപ്പിൻ്റെ കീഴിൽ തുടങ്ങിയിട്ടുണ്ട് അവർ അത് കുറെയൊക്കെ കാര്യമായിട്ട് പോകുന്നു എന്നേ പറയാൻ ഒക്കത്തുള്ളൂ എന്നാലും നമ്മുടെ നാട്ടിലെ ഓരോ ചിലവുകളൊക്കെ ഒന്ന് വച്ചു നോക്കുമ്പോൾ അത് ഇതുമായിട്ട് ഒരിക്കലും ചേർന്നു വരാത്തതു കൊണ്ട് ആരും അങ്ങനെ വലിയ പച്ചക്കറികളൊന്നും അല്ല പിന്നെ അവരവരുടെ വീടുകളിലെ ആവശ്യങ്ങൾ വേണ്ടി മാത്രം ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ഒക്കെ പോകുന്നു ഞാൻ എന്നെ സംബന്ധച്ചു പറഞ്ഞാൽ അത്രയേ ഉള്ളു വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പച്ചക്കറികൾ ഉല്പാദിപ്പിക്കും പിന്നെ നെൽ കൃഷി ചെയ്യാറുണ്ട് അത് ചെയ്യുന്നു അതിൻ്റെ പ്രയോജനം ഈ ഗവൺമെൻ്റ് നല്ല സിവിൽ സപ്ലൈസ് വഴി അത് സംഭരിക്കുന്നതു കൊണ്ട് അവർ സംഭരിക്കുന്നു അവർ അതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ ചെയ്യുന്നു അതുകൊണ്ട് അത് കൃത്യമായ രീതിയില് ആ കാര്യങ്ങളൊക്കെ അങ്ങ് പോവും